ആ അമ്മേ അമ്മയോടും പപ്പയോടും കൂടെയാണ് പറയുന്നത് നിങ്ങളുടെ ഫോൺ ആണെങ്കിൽ ഈ നമ്പർ മാറ്റാതെ തന്നെ എന്താണ് നമുക്ക് ഇപ്പോൾ പുതിയൊരു ഞാനൊരു പരസ്യം കണ്ടതാണ് ഈ പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ പുതിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഡിജി ലോക്കർ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പരസ്യം കണ്ടിരുന്നു അപ്പം എനിക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിലും ഞാനിപ്പം അമ്മയോടിത് പറയുവാണ് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഇതെന്ന് എനിക്കറിയില്ല അമ്മയുടെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒന്ന് നോക്കിയിട്ട് പറയാമായിരുന്നു ആ ഓക്കെ ഓക്കെ അവസാനം എത്രയാണ് ഒന്നോ ആ ഒന്ന് ഒന്നടിച്ചേ അതെ എന്നിട്ട് ആ അമ്മേ അമ്മേ എനിക്ക് ഫോൺ ഒന്ന് തരാ തരുമായിരുന്നെങ്കിൽ പപ്പയുടേയും കൂടെ ഫോൺ ഒന്ന് തരുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു ഇത് ഫോൺ തരുന്നതിന് കുഴപ്പം ഒന്നുമില്ലല്ലോ അല്ലേ ആ അപ്പം ഫോൺ ഇങ്ങ് തന്നേക്ക് ഞാനാണെങ്കിൽ ഇല്ലേ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ ഡിജി ലോക്ക് ഒക്കെ നിങ്ങൾക്ക് ഓ ഓൾമോ ഓൾറെഡി ഓൺ ആയിട്ട് വരും അപ്പോൾ കുഴപ്പമില്ല ആ ഫോണിന്റെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടായിരുന്നു

ഇല്ല ഇല്ല അത് അത് ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല പ്രശ്നം ഒന്നും പറ്റത്തൊന്നുമില്ല കുഴപ്പം ഒന്നുമില്ല അത് നമുക്ക് ഇവിടുന്ന് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അക്ഷയയിൽ വല്ലതും പോയി ചെയ്യാം അതിനൊന്നും പ്രശ്നം ഒന്നുമില്ല ഒന്നും പറ്റത്തൊന്നുമില്ല ഫോണിന് പ്രശ്നം ഒന്നും പറ്റില്ല ഫോൺ തരുന്നതിന് കുഴപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കുഴപ്പമില്ലല്ലോ ആ ഓക്കെ അപ്പം തന്നേക്ക്